ഓ എൻ്റെ സൈക്കിൾ യാത്ര എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഞാൻ കൂടുതലായിട്ടും സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പം തൃശ്ശൂർ വരെ ഞാൻ പോയിട്ടുണ്ട് സൈക്കിളില് അപ്പോൾ ഭയങ്കര ഒരു പാടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയില് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏതുനേരവും നമ്മുടെ ബേഗില് വെള്ളവും കാര്യങ്ങളും ഒക്കെ ആവശ്യമായും പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോട്ട് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് ഉള്ള അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് ഇപ്പം നമ്മള് ചെറിയ ഒരു എമൗണ്ട് വച്ചിട്ട് ആയിരിക്കും ഈ സൈക്കിൾ യാത്ര ഇല്ലെങ്കിൽ നമുക്ക് ബൈക്കോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ പോകാവുന്നതാണ് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണായതുകൊണ്ട് നമുക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ വരിക നമ്മളിപ്പം ഇതിൻ്റെ മറ്റേ നമ്മള് ടെൻഡും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വിജനമായിട്ടുള്ളൊരു രീതിയിലൊക്കെ എന്താ പറയുക വച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം അവിടത്തെ ആൾക്കാരുടെ ശല്യവും പിന്നെ മൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ സൈക്കിളുകള് പലതരം സൈക്കിൾ സൈക്കിളുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള സൈക്കിൾ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് യൂത്ര യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഹെർക്കൂലീസിൻ്റെ സൈക്കിളാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്